കായികരംഗത്ത് പ്രാത്ഭ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് അയ്യണി വളപ്പിൽ മണി വിജയൻ എന്നറിയപ്പെടുന്ന ഐ എം വിജയൻ അതായത് ഫുട്ബോൾ കളി ഫുട്ബോൾ രംഗത്തെ തനതായ വ്യക്തിമുദ്ര പതിച്ച പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിൻ്റെ ഒരു കായിക താരം കേരളത്തെ റെപ്രസെൻ്റ് കേരളത്തില് നിന്നുണ്ടായ ജന്മം കൊണ്ട ഒരു കായിക താരമാണ് ആദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കളി ഒരു ഫുട്ബോൾ മാന്ത്രികനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കളിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയുമൊക്കെ അദ്ദേഹം കളിച്ചു അദ്ദേഹത്തിൻ്റെ കളിയുടെ നൈപുണ്യം കാരണം അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൽ ശ്രദ്ധേയനായ ഒരു താരമായിട്ട് മാറാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു അദ്ദേഹം ജന്മം കൊണ്ട് കേരളം കേരളത്തിൻ്റേതായ ഒരു മണിമുത്താണ് പക്ഷേ ഇന്ത്യൻ ടീമിലും എത്തപ്പെടാനായിട്ട് യോഗ്യത നേടണമെങ്കിൽ അദ്ദേഹം ആ കലയിൽ ആ കളിയിൽ പ്രാഗൽഭ്യമുള്ളവൻ ആയതുകൊണ്ടു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൈയിൽ ആ പന്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ഗോൾ ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മുന്നേറ്റം നിരയിൽ നിന്ന് കളിക്കുന്ന ഒരു നല്ല കളിക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഏതാണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ കേരള പോലീസ് ടീമിൽ അംഗമാകുകയായിരുണ്ണു കേരള പോലീസ് ടീമിലെ അംഗമാകുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് പോലീസ് ടീമിന് ഇന്ത്യൻ ടീമിൽ വളരെ ഇതുണ്ടായി ഇന്ത്യൻ ഉള്ളിൽ വളരെ ശക്തമായ ഒരു ടീമായിരുന്നു ഇന്ത്യൻ പോലീസ് കേരള പോലീസ് ടീം എന്നു പറയുന്നത് അപ്പം അതിൽ നിന്ന് കേരള പോലീസ് ടീമിൽ നിന്നായിരുന്നു കൂടുതൽ ആളുകൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് കേരള പോലീസിലേക്ക് തെരഞ്ഞെടുത്തു ആ പോലീസ് ടീമിലെ അദ്ദേഹത്തെ അംഗമാക്കുകയും ചെയ്തു അവിടെ നിന്ന് അദ്ദേഹത്തിന് പോലീസ് ടീമിലെ അംഗമാക്കാൻ വേണ്ടി ഒത്തിരി റൂൾസൊക്കെ ഇത് അദ്ദേഹത്തിനു വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയൊക്കെ ആക്കിയിട്ടാണ് അദ്ദേഹത്തിന് നിയമനം കൊടുക്കുക ചെയ്തത് അതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തി ഇന്ത്യൻ ടീമിൽ അദ്ദേഹം നന്നായി കളിച്ചു നല്ല പ്രാഗൽഭ്യം നേടിയ ഏകദേശം എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യൻ ദേശീയ ടീമിലെത്തിയ ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ഏതാണ്ട് ഏഴുവത്തൊന്ത് എഴുപത്തി ഒമ്പത് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തി ഒമ്പത് ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അതൊരു വലിയ വിജയം നല്ല ഒരു നേട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റേത് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം കളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം ഫുട്ബോൾ പരിശീലകൻ ആയിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ പരിശീലനം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ അതിന് ഇതിനിടയ്ക്ക് അദ്ദേഹം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു കലാ കായിക പ്രതിഭ തന്നെയാണ് അദ്ദേഹമെന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ആ ചിട്ടയായ പരിശീലനം കുട്ടികൾക്ക് നല്ല ഒരു ഉയരത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും